വിനോദസഞ്ചാരികളോട് ഇടപഴകുന്നത് താത്പര്യമാണ് അവർ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവ അവരോടു സംസാരിക്കുന്നതു വഴി കുറേയൊക്കെ കാര്യങ്ങൾ നമുക്കു മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുവഴി കുറച്ചൊക്കെ അറിവു നമുക്കു കിട്ടുന്നുണ്ട് ആവ് അവർ വിനോദസഞ്ചാരികൾ ഇവിടെ വരും വരുന്നതു വഴി ഇവിടുത്തെ ഇവിടെ നിന്നുള്ള കുറച്ചു കാര്യങ്ങളും നമുക്ക് അവരോടു മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ അവർ പറയുന്നതും നമ്മൾക്ക് ഇവിടെ നിന്നു കുറച്ച് അങ്ങോട്ട് ഓരോ കാര്യങ്ങളും അവരുമായിട്ട് ഇതാകാൻ പറ്റുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള ഇതെല്ലാം നമ്മൾക്കു കിട്ടുന്നുണ്ട്